പോയതിൽ വളരെ മനോഹരമായി തോന്നിയ കുറച്ച് സ്ഥലങ്ങളെന്ന് പറയാണെങ്കില് മൂന്നാറ് ഊട്ടി കൊടൈക്കനാല് ബാംഗ്ലൂർ ഗോവ അങ്ങനങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് പെട്ടെന്നെനിക്ക് ഓർമ വരുന്നത് ഇത്രയും സ്ഥലങ്ങളാണ് മൂന്നാറ് എന്നൊക്കെ പറയുമ്പോള് നമ്മള് വട്ടവടാന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് പാമ്പാടൻ ചോല എന്ന് പറയുന്ന ഒരു ദേശീയ ഉദ്യാനം വഴിയാണ് നമ്മള് പോകുന്നെ നമ്മള് അതിരാവിലെയൊക്കെ പോവാണെങ്കില് അവിടെ നല്ല മൂടൽ മഞ്ഞ് അത് ശരിക്കും പ്രകൃതിയോട് പ്രകൃതി വളരെ അതിൻ്റെ എത്രത്തോളം ഭംഗിയാകാൻ പറ്റുവോ അത്രത്തോളം ഭംഗിയിൽ നിൽക്കുന്ന സമയാണ് മൂടൽ മഞ്ഞുകള് ഇറങ്ങി വളരെ വളരെ എന്താണു പറയുക കണ്ണിനും മനസ്സിനുമൊക്കെ വളരെ കുളിർമ തരുന്ന സ്ഥലങ്ങളാണ് മൂന്നാറ് ഊട്ടിയൊക്കെ കൊടൈക്കനാലൊക്കെ നല്ല മഞ്ഞും നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് മലയും കുന്നും വെള്ളച്ചാട്ടവും എല്ലാം കാണാന് പറ്റുന്ന വളരെ മനോഹരമായ സ്ഥലങ്ങളാണിതെല്ലാം ഗോവായെന്ന് പറയുമ്പോള് ഗോവയില് നമ്മള് പോയിക്കഴിഞ്ഞുകഴിഞ്ഞാല് കൂടുതലും നമ്മള് എക്സ്പ്ലോറെയ്യുന്നത് ഫുഡ്സാണ് വളരെ വ്യത്യസ്ത വ്യത്യസ്തമായ രീതിയില് നമുക്ക് ഒരുപാട് സീ ഫുഡ്സ് കിട്ടും നല്ല ടേസ്റ്റാണ് വളരെ ടേസ്റ്റിയായിട്ടുള്ള ഫുഡുകളാണ് ഗോവയില് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഗോവയിലെ ഫുഡുകള് ഇഷ്ടപ്പെട്ടു ബീച്ചുകള് ഒരുപാട് ബീച്ചുകളുണ്ട് പിന്നെ ഒരുപാട് പുരാതനമായ പള്ളികളും കെട്ടിടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് ഗോവ അത് ഒരു വേറൊരു വേറൊരു അറ്റ്മോസ്ഫിയറും വേറൊരു വൈബുമാണ് ഗോവയില് പിന്നേ ബാംഗ്ലൂരെന്നു പറയുമ്പോള് ബാംഗ്ലൂര് പോയിക്കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അവിടത്തെ കന്നട കന്നടക്കാരടെ ഒരു പ്രത്യേകതരം ബിരിയാണിയുണ്ട് അത് വളരെ നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് ഒരു ഒരു പ്രത്യേക ഒരു രുചിയാണ് അത് വളരെ ഇഷ്ടമാണ് എനിക്ക് പിന്നെ ബാംഗ്ലൂരില് പോയിക്കഴിഞ്ഞാല് ഒരുപാട് ഷോപ്പിംഗ് നടത്താമ്പറ്റും അവിടെ ഇങ്ങനെ കുറെ കുറെ മാർക്കറ്റുകളൊക്കെ ഉണ്ട് അപ്പോള് അവിടെ പോകുമ്പോള് നമുക്ക് കൂടുതലായിട്ടും ഡ്രസ്സുകളൊക്കെ വളരെ വില കുറവിനൊക്കെ നമുക്ക് അങ്ങനെ അന്വേഷിച്ച് ചെരുപ്പ് അങ്ങനെയുള്ള കൂടുതല് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിക്കഴിഞ്ഞാല് വാങ്ങാന് പറ്റും അത് അതൊരു ടൗണാണ് ഒരുപാട് കൺജസ്റ്റഡായിട്ടുള്ള ഏരിയാസുള്ള സ്ഥലങ്ങളാണ് ബാംഗ്ലൂർ ടൗൺ എന്നൊക്കെ പറയുമ്പോള് പിന്നെ അവിടത്തെ ബൊട്ടാണിക് ഗാഡൻ പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കാണാനുള്ളത് നന്തി ഹിൽസ്ന്ന് പറഞ്ഞ ഒരു ആ മൗണ്ടെയ്ൻ പോലത്തെ അവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ടെയ്തിട്ടുണ്ട് കുറച്ച് ഹൈറ്റിലാണ് അത് കയറിച്ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കയറിച്ചെന്നിട്ട് നമ്മള് നോക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് അതിമനോഹരമായൊരു കാഴ്ചയാണ് അവിടെ നമ്മള് മോളീന്ന് നോക്കുമ്പോള് താഴെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന കുറേ മേഘങ്ങള് അത് വളരെ ഒരു എന്താ പറയുക നമുക്ക് അങ്ങനെ വർണ്ണിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു പ്രകൃതിയുടെ ഭംഗിയാണ് അത് വളരെ മനോഹരമാണ് അങ്ങനെ നന്തി ഹിൽസ് അതവിടെയൊരു സ്പെഷ്യൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ അവിടെ ബാംഗ്ലൂരെന്നു പറയുമ്പോള് കുറെ കുറേ എന്താണു പറയുക പുരാതനമായ ഈ ടിപ്പു സുൽത്താൻ പോലെ ഉള്ള ആൾക്കാരുടെ പടക്കോട്ടകളൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോള് അത് ഒരു ഡിഫറൻ്റായിട്ടൊള്ളൊരു കാഴ്ചയാണ് നാലു വശത്തുമിങ്ങനെ കോട്ടകളൊക്കപ്പോലെ കണ്ടിട്ടുണ്ട് പിന്നേ അവിടത്തെ ടെമ്പിൾസ് അതൊരു എപ്പോഴും ഉത്സവമാണ് നല്ലൊരു വൈബാണ് എപ്പോള് നോക്കിയാലും അവിടെ എ കൂടുതൽ കൂടുതൽ ഫെസ്റ്റിവൽസ് നമ്മള് കാണാറുണ്ട് കർണ്ണാടകയില് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില ചില ഗ്രാമങ്ങള് കാണാനായിട്ട് നല്ല രസമാണ് അവിടത്തെ കൃഷിയും കാര്യങ്ങളും ഇപ്പോള് ബാംഗ്ലൂരാണെങ്കിലും തമിഴ്നാടാണെങ്കിലും നമ്മള് ഈ റോസാപ്പൂവിൻ്റെ പാടങ്ങള് അതായതിപ്പോള് നമ്മുടെ ഇവിടെ നെൽപ്പാടങ്ങളൊക്കെ പോലെതന്നെ അവിടെ റോസാപ്പൂ റോസാച്ചെടി ഉണ്ടായിട്ട് അതിമ്മെ നിറയെ പൂക്കളുണ്ടായി നില്ക്കും ജമന്തി അങ്ങനെ ഒരുപാട് പൂക്കള് ഉണ്ടായി നില്ക്കും അങ്ങനെ അങ്ങനെ അവിടെ കൃഷി മറ്റെ മല്ലിച്ചെപ്പൊക്കെ ഉണ്ടായി ഇങ്ങനെ നില്ക്കും അങ്ങനെ ഒരുപാട് കൃഷി ഉള്ളൊരു സ്ഥലം കൂടിയാണ് അപ്പോള് അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് എല്ലാ എല്ലാ ഓരോരോ സ്ഥലങ്ങളില് ഇപ്പോള് ഇപ്പോള് മൂന്നാറ് കൊടൈക്കനാല് പിന്നെ ബാംഗ്ലൂര് ഗോവ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലും പല ടൈപ്പ് തരത്തിലുള്ള ഓരോരോ കാഴ്ചകള് നമുക്ക് കാണാന് പറ്റും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളില് എനിക്ക് കുറച്ചുകൂടി മനസ്സില് ഓർമ വരുന്നതെന്നൊക്കെ പറഞ്ഞ മൂന്നാറ് കൊടൈക്കനാല് ഊട്ടി ബാംഗ്ലൂര് ഗോവ അതൊക്കെയാണ് ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്